ആ മതി ഇവിടെ നിർത്തിയാൽ മതി ചേട്ടാ എൻ്റെ കയ്യില് പൈസയില്ല അത് ക്യാഷ് ആയിട്ടില്ല അപ്പം യു പി ഐ ഐ ഡി എന്തെങ്കിലും ഉണ്ടാകുവോ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ പേറ്റിഎമ്മോ എന്തെങ്കിലും ഉണ്ടാകുവോ ഞാന് ഓൺലൈൻ ബാങ്കിങ് വഴി ചെയ്ത് തരാം അതോ ചേട്ടന് ഓൺലൈൻ ബാങ്കിങ് ഉണ്ടോ പൈസ തന്നെയായിട്ട് വേണോ എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ലൂസായിട്ട് എൻ്റെ കയ്യില് ക്യാഷില്ല അപ്പം ആ ചേട്ടന് പേറ്റി എമ്മോ ഗൂഗിൾ പേയോ എന്തെങ്കിലുവൊണ്ടെങ്കിൽ അങ്ങനെ ട്രാൻസ്ഫെറ് ചെയ്യായിരുന്നു പൈസ